ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രദേശത്ത് കൂടുതലായിട്ടും പല രീതിയിലുള്ള മതങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്ന് വച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും മതങ്ങൾ ഉള്ളതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുമതമാണ് കൂടുതലായിട്ടും ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത് ഇപ്പോൾ നമ്മുടെ ഹിന്ദുമതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ജാതികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഒരേ ദൈവത്തെയാണ് നമ്മൾ എന്താ പറയുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നു വേണമെങ്കിൽ പറയാം പിന്നെ ഉള്ളത് ക്രിസ്തുമതമാണ് ക്രിസ്തുമതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ ഉള്ള മതമാണ് പിന്നെ മുസ്ലിംസ് പിന്നെ ബുദ്ധമതം ബുദ്ധമതം നമ്മളതിൽ അങ്ങനെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഇല്ല പിന്നേ ബുദ്ധമതം കൂടുതലായിട്ടും നേപ്പാള് ആ ഭാഗത്തേക്ക് ആണ് കൂടുതലായിട്ടും ബുദ്ധമതവും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മതങ്ങളാണ് മെയിനായിട്ട് ഉള്ളത് മുസ്ലിംസ് പിന്നെ ക്രിസ്ത്യൻസ് പിന്നെ ഹിന്ദുക്കൾ അപ്പോൾ അങ്ങനെ മൂന്ന് മതങ്ങളാണ് നമ്മളെയടുത്ത് കൂടുതലായിട്ട് ഉളളത് ഇവരുടേതിൽ പല രീതിയിലുള്ള ജാതിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് മൂന്ന് മതമാണ് മെയിനായിട്ട് വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം